ഞാൻ ഓൺലൈൻ ആയിട്ട് ഒരു സാരി ബുക്ക് ചെയ്തെ അപ്പോൾ ആ സാരി വന്നു നോക്കുമ്പോഴത്തേക്കും അതിന് ആയിരത്തി അഞ്ഞൂർ രൂപായ്ക് മേലേ വില വരുന്ന ഒരു സാരിയാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഒരു പത്തു നാനൂറ്റൻപത് രുപാ വിലയെ മതിപ്പതിനു പറയത്തുള്ളൂ രണ്ടാമത് അവിടവിടൊക്കേ പിഞ്ചി കീറി ഇരിക്കുന്ന ടൈപ്പിൽ നമ്മൾ പറഞ്ഞ കളറും അല്ല അതും ആയിട്ട് ഏകദേശം സാമ്യം ഉണ്ടെന്നല്ലാതെ അത് അതിൻ്റെ ക്വാളിറ്റി ഇല്ല തുണി ഒന്നും കൊള്ളുകേല തീരെ മോശപ്പെട്ടൊരു ഒരു സാധനം ഇത്രയേ അബദ്ധപ്പെട്ടു പോയെന്നു കടെ പോയ് എടുത്തിരുന്നെങ്കിൽ ഇതിലും ഭേദപ്പെട്ട് നല്ല സാധനം എടുക്കാമായിരുന്നു നമ്മൾ വീട്ടിലിരുന്നു വളരെ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുമല്ലോ എന്നോർത്തിട്ട് എളുപ്പം എളുപ്പം ചെയ്തൊരു കാര്യമായിപ്പോയി ഇതു പോലെ ഒരു ബുദ്ധിമുട്ട് വരാനില്ല നമ്മുടെ കയ്യിലേ പൈസയും പോയി റിട്ടേൺ അവർ എടുക്കത്തില്ലെന്നുള്ളതാണ് ആ ടൈപ്പാണ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഇനിയപ്പോൾ അതു കാരണം ആകെ ഒരു മനസ്സിനു ബുദ്ധിമുട്ട് ആയിപ്പോയി ഈ സാധനം ഇങ്ങനത്തെയൊക്കേ ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്ന കാരണം ഇനി മേലാൽ ഇങ്ങനെ ഉള്ള ഓർഡറുകൾ എടുക്കാനായിട്ട് തയാറാകുന്നില്ല